ഞാൻ ഒരു ചെറിയ രീതിയിൽ ഒരു ഫാഷൻ ഡിസൈനിങ്ങ് സ്ഥാപനം നടത്തുന്ന ആളാണ് അപ്പം അങ്ങനെ ഓരോ ട്രെൻറ്റിനനുസരിച്ച് ഓരോ കുട്ടികൾ വന്ന് പറയുന്ന രീതിയിൽ അവർക്ക് വേണ്ടീട്ട് ഞാൻ ഓര് പറയുന്ന രീതി തന്നെ ഓരോ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അമിതമായ ഡ്രസ്സുകളൊന്നും പൈസയൊന്നും അതിന് ഈടാക്കാറില്ല സാധാരണ ഒരു ഒരു ചുരിദാറിൻ്റെ ചുരിദാറ് തയ്ക്കുന്നതിന് മുന്നൂറ് രൂപ അതാണ് ഞാൻ വാങ്ങാറുള്ളത് ബ്ലൗസ് ഒക്കെ ആണെങ്കിലും മുന്നൂറ് രൂപയാണ് പാൻ്റ് ഷർട്ട് അങ്ങനെ ബോയ്സിൻ്റെ ആണുങ്ങൾ പുരുഷന്മാരുടെ ഒന്നും തയ്ക്കാറില്ല കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഉടുപ്പുകൾ അതുപോലെ തന്നെ ചുരിദാറ് ബ്ലൗസ് അങ്ങനൊക്കെ തയ്ക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പൈസ ഒന്നും അതിന് ഈടാക്കാറില്ല അവർ പറയുന്ന രീതിയിൽ തന്നെ അത് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഈ കുറെ ഉപഭോക്താവ് കുറെ ഉപഭോക്താക്കളുണ്ട് അവർ സംതൃപ്തരാണ് അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും എൻ്റടുത്ത് വരാറും അവർക്ക് വേണ്ട അവർ കൊണ്ടു വരുന്ന കാര്യത്തിൽ ഡ്രസ്സിൽ അവരുടെ ആശയം അവർ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പം അതിന് അമിതമായിട്ട് ഉള്ള പൈസയൊന്നും വില അധികം ഈടാക്കാത്തത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് വരാനായിട്ട് താൽപര്യം ഉണ്ട് അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന രീതി തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചില ആൾക്കാരെ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറഞ്ഞ് വരുമ്പം അവർക്ക് ഞാൻ എൻ്റെ ആശയം അനുസരിച്ച് പുതിയ ആ ട്രെൻറ്റിന് അനുസരിച്ച് ഒക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഒന്നിന് വേണ്ടിട്ട് ഞാൻ അമിതമായിട്ടിപ്പം ഇനൊരു ഡ്രസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു അതിന് വേണ്ടി എത്ര രൂപാച്ചോ കൂടുതൽ ചാർജ്ജ് തരണമെന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല നോർമലായിട്ട് ഉള്ള ഒരു റേറ്റായ മുന്നൂറ് രൂപ അത് അതാണ് മുന്നൂറ് മുന്നൂറ്റി അൻപത് അതേ കൂടുതൽ ഒന്ന് ഈടാക്കാറില്ല കൂടുതലും കുട്ടികൾ ഒക്കെ ആയിരിക്കും എൻ്റെ അടുത്ത് വരാറുള്ളത് അപ്പം അവർക്ക് അവരുടെ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പൈസയാണ് വലിയ ഞാൻ വാങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉപഭോക്തക്കൾ ഒക്കെ സംതൃപ്തരാണ് ന്യായമായ ഒരു കാര്യങ്ങൾ ചെയ്യുക പൈസയും വാങ്ങുന്നുള്ളൂ അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ കൂടുതലും കൂടുതലും ആൾക്കാർ കുട്ടികൾ എന്റെ അടുത്ത് വരാറുണ്ട് ചെറിയ കുട്ടികൾക്കായുള്ള ഉടുപ്പൊക്കെ തയ്ക്കുമ്പം അവർക്ക് അവർ അതൊക്കെ ഇട്ട് കാണുന്നത് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ ആൾക്കാർ കുറേ ഉപഭോക്തക്കളുണ്ട് അവർ എല്ലാവരും ആരും ഇതുവരെ എന്നോട് മോശമായ രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ അവർക്കത് ചെയ്ത് കൊടുക്കാറുണ്ട് അമിതമായ ചാർജ്ജിടാക്കാറും ഇല്ല എല്ലാ ഓരോ പ്രദേശത്ത് ഓരോ ഓരോന്നിനും ഓരോ ഡ്രെസ്സിനും ഓരോ ചാർജൊണ്ടല്ലോ ആ ചാർജ് തന്നെയാണ് ഞാനും ഈടാക്കുന്നത് അത് അതിൽ കൂടുതൽ ഒന്നും വാങ്ങാറില്ല ഇച്ചിരൂടെ കുറച്ചാണ് കുറവാണ് സാധാരണ ഞാൻ വാങ്ങാറുള്ളത് ഓരോ ഡ്രസ്സൊക്കെ ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിനായിട്ട് ഒരു ചാർജ്ജൊന്നും വാങ്ങിക്കുന്നില്ല നോർമൽ റേറ്റി തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പുറത്തെന്ന് ചിലപ്പം ചില സാധനങ്ങൾ വാങ്ങുമ്പം അവർ വാങ്ങി വെക്കണം വെക്കാം എന്ന് പറഞ്ഞ് കൊണ്ട് വരുമ്പം ചിലപ്പം അത് അത് വാങ്ങിക്കുമ്പം വാങ്ങുമ്പം അതിൻ്റെ വില വാങ്ങിക്കാറുണ്ട് അല്ലാതെ ആ വാങ്ങിക്കുന്ന സാധനം എക്സ്ട്രാ വാങ്ങുന്ന സാധനത്തിൻ്റെ വില അവരോട് തന്നെ ഞാൻ വാങ്ങിക്കാറുണ്ട് അല്ലാതെ കൂടുതലായിട്ട് ഒന്നും ഈടാക്കാറില്ല ഉപഭോക്താക്കൾ ഒക്കെ സംതൃപ്തരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു